എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഫോണാണ് അത് വാങ്ങിയ സമയത്തന്നെ അത്യാവശ്യം എൻ്റെ നല്ല ഫോണാണ് ക്യാ ക്യാമറ ക്ലാരിറ്റിയും ബാ ഫ്രണ്ട് ക്യാമറ ആണെലും ബാക്ക് ക്യാമറ ആണേലും നല്ല ക്ലാരിറ്റിക്കെ ഉണ്ടായിരുന്നു അതുപോലെത്തന്നെ എന്താ പറയാ ചാർജിങ്ങ് കപ്പാസിറ്റി ഭയങ്കര ഹൈയായിരുന്നു അതുപോലെ ബാക്റ്ററി കപ്പാസിറ്റിക്കെ നല്ല ഇതായിരുന്നു എന്താച്ചാ എൻ്റെ ഫോൺ ഒന്ന് കുത്തീട്ടാത്തന്നെ വേഗമൊന്ന് ചാർജ് ആകും അതുപോലെത്തന്നെ ചാർജറ് എന്താ നല്ല എന്താ പറയാ വേഗമൊന്നും ചാർജാകും അങ്ങനെ തീരുവൊന്നൂല്ല അത്യാവശ്യം നല്ല ഫോണായിരുന്നു അതുപോലെത്തന്നെ വാട്ടർ പ്രൂഫായിരുന്നു പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം പറയാണേൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുള്ള ഫോണാണ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ട്ടമാണ് ആ ഫോണെക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ എടുത്ത ഫോണാന്ന് അതുകൊണ്ട് ഇതിൻ്റെ പോസ്റ്റീവെന്ന് പറയുവാണെങ്കിൽ ഇത്രക്ക തന്നെയാണ് പറയാനുള്ളത് വാട്ടർ പ്രൂഫാണ് നമുക്ക് ലൈറ്റ് വൈറ്റുള്ള ഫോണാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും നല്ല ഹാൻഡില് ചെയ്യാൻ എളുപ്പാണ് അതുപോലെ കുറച്ച് എൻ്റെ ഫോണിനെ പറ്റി പറയാനുള്ളത് അതുപോലെത്തന്നെ ഇത് എന്താ പറയാ നല്ല ഹൈ ചാർജിങ്ങ് കപ്പാസിറ്റി ആണെന്ന് വെച്ചാൽ നമ്മൾ കുത്തിയിട്ടാൽ വേഗം ചാർജ് കയറും അങ്ങനെത്തന്നെ വേഗമൊന്ന് ചാർജ് അങ്ങനെ ഇറങ്ങുവൊന്നൂല്ല അത്യാവശ്യം നല്ല ഒരു ചാർജ് കയറ്റിയാൽ തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ഫോണിൽ ചാർജ് നിൽക്കും അതൊക്കെ നല്ലൊരു ഇതൊള്ള ഫോണാണ് എൻ്റെ ഫോണെന്ന് പറയുവാണെത്തന്നെ ആ ഇതണിപ്പം എൻ്റെ ഫോണിനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ളത്